പണ്ട് പഴശ്ശിരാജയെപ്പോലെയുള്ള രാജാക്കന്മാർ ഭരിച്ച സമയത്ത് അയാൾ ഒളിവിൽ താമസിച്ച സ്ഥലം ഒക്കെയാണ് വയനാട്ടിൽ ഉള്ളത് അപ്പോൾ ഇവിടെ വയനാട്ടിൽ വണ്ടിക്കടവ് എന്നു പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പഴശ്ശിരാജേൻ്റെ ഒരു സ്മാരകം തന്നെ അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ വന്നതിനെ തുടർന്ന് നമ്മുടെ അയൽവാസികളൊക്കെ അതിൻ്റെ ചുറ്റോടു ചുറ്റ് താമസിക്കുന്നവർക്ക് ഒക്കെ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് പുതിയ പുതിയ കച്ചവടങ്ങളും അങ്ങനെ പുറമേ നിന്ന് ആൾക്കാർ ഇവിടെ സന്ദർശിക്കാൻ വരുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് കട പുതിയ പുതിയ കടകൾ കച്ചവടം അങ്ങനെയൊക്കെ തുടങ്ങിയതിനെ തുടർന്ന് അവർക്ക് നല്ല ലാഭം അതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് നല്ലൊരൂ മെച്ചം തന്നെയാണ് അവിടെ ലഭിക്കുന്നത് അവർക്ക് പുതിയ ഒരു ജീവിതമാർഗ്ഗം അവിടെ ഉണ്ടായി പിന്നെ പൊതുവേ അവിടെ പരിസരങ്ങളിൽ ഉള്ള സ്ത്രീകൾക്കൊക്കെ അവിടെ ഒരു പാർക്ക് പോലെ സൃഷ്ടിച്ചതിനെ തുടർന്ന് അവിടെ ജോബ് അതായത് ജോലി ഒക്കെ ലഭിക്കുകയും ചെയ്തു അത് അവർക്ക് ഒരു വലിയ സഹായം തന്നെയായിരുന്നു